തയ്യൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വരുമാന മാർഗ്ഗമായിട്ടല്ല ഞാൻ കാണുന്നത് എൻ്റേതായ തുണികൾ എൻ്റെ വീട്ടിലെ അത്യാവശ്യം കുട്ടികളുടെയും മാതാപിതാക്കളുടെയും എൻ്റേതുമായ തുണികൾ തയ്ച്ചു എടുക്കുക എന്നുള്ള ഒരു കൺസപ്റ്റിൽ ആണ് ഞാൻ അത് തയ്യൽ തുടങ്ങിയത് തയ്ക്കുന്നത് അത് അങ്ങനെ അത്ര മറ്റ് കാര്യങ്ങളെ ജീവിതത്തിലെ മറ്റു കാര്യങ്ങളെ അങ്ങനെ അത് ബാധിച്ചതായിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം നമ്മളുടെ വീട്ടിലെ അത്യാവശ്യ കാര്യങ്ങളെല്ലാം ചെയ്ത് തീർത്തതിന്ശേഷം നമ്മൾക്ക് ഒഴിവുള്ള സമയത്താണ് ഈ തയ്യലിനെ തയ്യലിൻ്റെ കാര്യങ്ങൾക്കായിട്ട് നമ്മൾ സമയം മാറ്റിവെക്കുന്നത് പിന്നെ നൂലു കൊണ്ട് പണിയെടുക്കുന്നത് കൊണ്ട് അങ്ങനെ ശാരീരിക വേദനയൊന്നും ഉണ്ടായിട്ടില്ല പക്ഷേ പ്രായം ഒരു മുപ്പത്തി അഞ്ച് നാൽപത് വയസ്സ് ആയതിന് ശേഷം കണ്ണിന് നൂലു കോർക്കാനും അങ്ങനെ ഉള്ള ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നു എന്നല്ലാതെ വേറെ ഒരു ബുദ്ധിമുട്ടായിട്ടങ്ങനെ തോന്നാറില്ല എന്നാൽ അത്യാവശ്യം പണം ലാഭിക്കാവുന്ന അതായത് നമ്മൾ ഒരു പിന്നെ ഇറക്കം കുറയ്ക്കുക വണ്ണം കുറയ്ക്കുക തയ്യല് വിട്ടത് വീണ്ടും സ്റ്റിച്ച് ഇടുക ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കായിട്ട് നമ്മൾ ഒരു തയ്യൽക്കാരൻ്റെ അടുത്ത് നമ്മൾ തയ്ക്കാൻ കൊണ്ടു ചെന്നാൽ ഇന്നത്തെ കാലത്ത് ഒരു അമ്പത് രൂപയിൽ കുറയാത്ത കൂലി നമ്മൾ കൊടുക്കണം അങ്ങനെ ഒരു വീട്ടിലെ മൂന്നു നാലു പേരുടെ അല്ലേ ഒരു ഒരാളുടെ തന്നെ നാല് ജോഡി ഡ്രെസ്സാവുമ്പോൾ അതൊരു ഇരുന്നൂറ് രൂപ ഇരുനൂറ്റി അമ്പത് രൂപയ്ക്ക് നമുക്ക് ലാഭിക്കാൻ സാധിക്കുന്നുണ്ട് അങ്ങനെ തയ്യൽ എന്നെ ജീവിത എൻ്റെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം അതെനിക്ക് ഒരു പണം സമ്പാദിക്കുക എന്നുള്ളതിനേക്കാൾ ഉപരി എൻ്റെ ചിലവുകൾ കുറയ്ക്കാനായിട്ടുള്ള ഒരു മാർഗ്ഗമായിട്ടാണ് ഞാൻ കാണുന്നത് അതുകൊണ്ട് തന്നെ അതെനിക്ക് വളരെ പ്രയോജനപ്രദമായ ഒരു സൈഡ് ബിസിനെസ് ആയിട്ട് തന്നെ ഞാൻ മനസ്സിലാക്കുന്നു